ജോലിക്ക് പുറത്തുള്ള എൻ്റെ ഹോബിയും താത്പര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് കൽപ്പറ്റ താലൂക്കില് ക്ലർക്ക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഹോബികളെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വീട്ടിലാണ് എന്ന് ഉണ്ടെങ്കിൽ അതായത് നമുക്കൊരു ശനിയും ഞായറൂം ലീവുണ്ടാവുകയുള്ളു വീട്ടിലൊരുപാടു പണികള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ എന്താണ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഉം ഞാൻ ചിത്രം വരയ്ക്കും നല്ലോണം അപ്പോൾ ഞാനിങ്ങനെ ഒഴിവു കിട്ടുന്ന സമയത്തൊക്കെ നല്ല ചിത്രങ്ങളൊക്കെ വരയ്ക്കും പിന്നെ എന്താ പറയുക കുട്ടികളൊക്കെ വരുവാണെങ്കിൽ കുട്ടികളുടെ കൂടെയെന്തെങ്കിലും കളിക്കും പിന്നെയെനിക്ക് മക്കളുണ്ട് മക്കൾടെ കൂടെ കുറെ നേരം സ്പെൻഡ് ചെയ്യും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവരുടെ ഹോംവർക്കൊക്കെ ചെയ്തുകൊടുക്കും അവർക്ക് പഠിപ്പിച്ചുകൊടുക്കും അങ്ങനെയുള്ളതൊക്കെ പിന്നെ കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ് വീട്ടിലെന്തെങ്കിലും അതായത് അതായത് ഹോളിഡേയ്സില് എന്തെങ്കിലൊക്കെ വീട്ടിലുണ്ടാക്കിക്കൊടുക്കും പിന്നെ എവിടെങ്കിലൊക്കെ ട്രിപ്പ് പോകും പിന്നെ എന്താന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മേൻ്റെ അ എൻ്റെ അമ്മേൻ്റെടുത്തേക്ക് പോകും പിന്നെ അതൊക്കെത്തന്നെയാണ് മൈനായിട്ട് ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ കൂടുതലും ശനിയും ഞായറുമൊക്കെ കുറെ പണിയുണ്ടാകും അതൊക്കെ തീർത്തിട്ട് പിന്നെ അതുകഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ സമയങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെലവഴിക്കാറ്